നമ്മുടെ ജില്ലയില് ഒരുപാട് പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതിന് ഒരുപാട് വെല്ലുവിളികളും ഉയർന്നിട്ടുണ്ട് ഇപ്പോൾ പ്ലാസ്റ്റിക് നിരോധനം പ്ലാസ്റ്റിക് നിരോധനത്തെ സംബന്ധിച്ച് നമ്മുടെ ജില്ലയില്ഹരിതകർമ്മസേന എന്ന് പറഞ്ഞൊരു സംരംഭം കൊണ്ടുവന്നു ആ സംരംഭം അവര് എല്ലാ മാസവും നമ്മുടെ വീട്ടിൽ വന്ന് പ്ലാസ്റ്റിക് കളക്ട് ചെയ്തത് കൊണ്ടുപോയിഅത് റീ പ്രോഡക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് എന്താന്ന് വെച്ചാൽ അപ്പോൾ നമ്മള് പ്ലാസ്റ്റിക്കുകൾ എവിടെയും വലിച്ചെറിയുന്നില്ല അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ എന്താ പറയുക അതിനുവേണ്ടിയിട്ടവര് ഇപ്പോൾ വനപ്രദേശങ്ങളിലോക്കെയാണെങ്കിൽ അവര് ഒരു വലിയൊരു ബോക്സ് വച്ചിട്ടുണ്ട് അപ്പോൾ കുപ്പിയും പ്ലാസ്റ്റിക്കിൻറ്റെ കുപ്പിയൊക്കെ ഉണ്ടെങ്കില് അതിനകത്ത് നമുക്ക് നിക്ഷേപിക്കാം ആ അതിനകത്ത് അവർ എന്നിട്ട് അത് നിറയുമ്പോൾ അവര് അതെടുത്തിട്ട് പൊയ്ക്കോളും അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കെന്താ ആ എന്താ പ്ലാസ്റ്റിക്കിൻറ്റെ ഉപയോഗംഉപയോഗ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പരിസ്ഥിതിക്ക് കോട്ടം തട്ടുന്നില്ല അത് അവിടെ കിടക്കുക അവിടെ ഇവിടേയും കിടക്കുക അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല അതൊക്കെ അപ്പോൾ അത് അവര് എടുത്തുകൊണ്ട് പോകുമല്ലൊ അപ്പോൾ അതൊരു പ്രധാന ഒരു സംരംഭം സംരക്ഷണം തന്നെയാണ് നമ്മള് പരിസ്ഥിതിയെ അതിന് വെല്ലുവിളിയും ഉയർന്നിട്ടുണ്ട് എന്താന്ന് വെച്ചാല് ചിലര് എന്താ ചെയ്യുക അങ്ങനെ ചെയ്യാതെ വലിച്ചെറിയുക അതൊക്കെ അതിനോട് ആ ഒരു സംരംഭ സംരംഭത്തോട് അനുകൂലിക്കാത്ത ആൾക്കാരണല്ലോ അതുകൊണ്ട് തന്നെ അതിന് വെല്ലുവിളിയും വന്നിട്ടുണ്ട് അത് നമ്മുടെ നമ്മുടെ പ്രദേശത്തൊക്കെയാണെങ്കില് നമ്മള് നമ്മുടെ ഏരിയയില് ഇതൊക്കെ പ്ലാസ്റ്റിക്കൊന്നും വലിച്ചെറിയില്ല പ്ലാസ്റ്റിക് കത്തിക്കില്ല അങ്ങനെയുള്ള കാര്യം അങ്ങനെയൊന്നും ചെയ്യില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു നമ്മുടെ ഒരു മേഖല എപ്പോഴും സുരക്ഷിതമാണ്